ഗ്രാമീണ നഗര അദ്ധ്യാപനങ്ങളിൽ തികച്ചും രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ് നടക്കുന്നത് ഗ്രാമീണ അദ്ധ്യാപനം അത് കൃത്യമായിട്ടുള്ള ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു പുതിയ ഒരു ഇടീ ആവിഷ്കരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഗുരുവും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു അവഭേദ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു അദ്ധ്യാപന ശൈലിയായിട്ട് നമുക്ക് അതിന് കാണാം നഗര അദ്ധ്യാപനം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളും ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എ ഐ കാലഘട്ടമായത് കൊണ്ട് തന്നെ പറയാനുള്ളത് ഇത്തരം എ ഐ ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസഡും സ്റ്റഡി സിസ്റ്റം ആണ് നമ്മുടെ നഗര ജീവിതത്തിൽ പ്രധാന നഗര അദ്ധ്യാപനത്തിൽ പ്രഥമമായിട്ട് നിലകൊള്ളുന്നത് ഗ്രാമീണ വിദ്യാഭ്യാസം അത് അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ഒക്കെയും കടന്ന് ചെല്ലുന്നുള്ള മറ്റൊരു കാര്യമാണ് പ്രവർത്തന മണ്ഡലമെന്ന് കരുതുന്നത് അത് ഉദാഹരണത്തിൻ്റെ കൃഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വയലുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള പഠനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നഗര അദ്ധ്യാപന ശൈലി അത് അവരെ ക്ലാസ് മുറിയിൽ തന്നെ വയലുകളിലൂടെയും കടലിലൂടെയും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾ കടന്ന് ചെല്ലുന്നു അതിന് അവർ ഉപയോഗിക്കുന്നത് എ ഐ പോലത്തെ വീഡിയോ പോലത്തെ അതുപോലെ തന്നെ മറ്റു മാർഗ്ഗങ്ങളാണ്